ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ടത്തെ കാലത്തേ അപേക്ഷിച്ചിട്ട് എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലുകളിൽ ഉണ്ട് അതിപ്പോൾ ഓരോ ചെക്കപ്പിന് ആണെങ്കിലും എല്ലാത്തിനും ഇ സി ജി അതേപോലെ എക്സറേ എം ആർ ഐ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് അൾട്രാ സ്കാനിംഗ് അങ്ങനെ ഒരുപാട് സ്കാനിങ്ങുകൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നന്നായിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഉപകാരം ആണ് ഇതെല്ലാം നമുക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വരുന്നില്ല അതേപോലെ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുദിവസം കഴിഞ്ഞിട്ട് റിസൾട്ടിന് പോവണ്ട നമുക്ക് ഒരു അരമണിക്കൂറ് പത്തു മിനിറ്റ് കഴിയുമ്പോഴേക്കും റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടും അതുപോലുള്ള ന്യുനതമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് ഇന്നത്തെ കാലത്ത് ഉള്ളത് അതിപ്പോൾ ഏതൊരു ടെസ്റ്റിനാണെങ്കിലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമുക്ക് ഇപ്പോൾ പണചിലവും അധികം ഇല്ല മറ്റേത് നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി രണ്ട് പ്രാവശ്യം പോവണം മൂന്ന് പ്രാവശ്യം പോവണം ഇത് ഒരു ദിവസം പോയാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെക്കപ്പ് ചെയ്യാൻ ഉള്ളത് ചെക്കപ്പും ഇ സി ജിയും നമ്മുടെ ഹാർട്ടിൻ്റെ ഹാർട്ട് റേറ്റും എല്ലാം നമുക്ക് പോയി വരണ മിഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് എല്ലാം സാധ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സമയലാഭം ആണ് അതേപോലെ ഒരുപാട് പണ ചിലവൊന്നും വരുന്നില്ല